വളർത്തുമൃഗങ്ങളെ മനുഷ്യർ അവയുമായിട്ടുള്ള ഇടപഴകുന്നയൊരു മനുഷ്യർക്ക് രോഗമുണ്ടെങ്കിൽ ആ രോഗമുള്ളവർ മാ ഈ മൃഗങ്ങളുമായിട്ട് മൃഗ പരിപാലനം ഒഴിവാക്കുക മാ മറ്റുള്ളവരെ അത് ഏൽപ്പിക്കുക രോഗം വരികയാണെങ്കിൽ അവ വിദഗ്ദ്ധരായ ഡോക്ടർമാരുടെ പരിശോധനകൾ നടത്തി അതിനു വേണ്ടത്ര പ്രതിരോധം കുത്തിവെപ്പുകൾ നടത്തുക അഥവാ മൃഗങ്ങൾക്ക് വരുന്ന രോഗങ്ങളിൽ നിന്ന് രക്ഷ പ്രാപിക്കാനും മൃഗങ്ങൾ മനുഷ്യരിൽ നിന്നു മൃഗങ്ങളിലേക്ക് വരുന്ന പകരുന്ന രോഗങ്ങളെ ഒഴിവാക്കാനും സാധിക്കും എപ്പോഴും ഒരു നല്ല മൃഗ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമായിരിക്കണം മൃഗങ്ങളെ വളർത്താൻ മനുഷ്യരിലുണ്ടാകുന്ന മിക്ക രോഗങ്ങളും മൃഗങ്ങളിലേക്ക് ബാധിക്കാറുണ്ട് അതെ പരിപാലിക്കുന്നവരാണെങ്കിലവർ അവരിൽ നിന്നും മാറി നിൽക്കണം മൃഗങ്ങളുടെ രോഗങ്ങൾക്ക് മനുഷ്യർക്കും ബാധിക്കാറുണ്ട് അവയേ അത് മൃഗങ്ങളുമായിട്ട് ഇടപഴകിച്ചവരെ സൂക്ഷിച്ചായിരിക്കണം ഭക്ഷണ കാര്യങ്ങൾ കൊടുക്കുന്നതിലും എല്ലാം മനുഷ്യരേ അതിനു വേണ്ടത്തക്ക ശുചിത്വം പാലിക്കണം അവയിലൂടെ മൃഗങ്ങൾക്ക് മനുഷ്യരിൽ നിന്നും രോഗങ്ങളുണ്ടാകാതിരിക്കാനും മൃഗങ്ങളിലെ രോഗങ്ങൾ മനുഷ്യരിലേക്ക് ബാധിക്കാതെ ഇരിക്കാനും ഒരു നല്ല കാരണമാണ് മായി തീരും എപ്പോഴും മൃഗപരിപാലനം വളരെ സൂക്ഷ്മതയോടെ ചെയ്യേണ്ട കാര്യമാണ് അത് മനുഷ്യരെയും മൃഗങ്ങളെയും ഒരുപോലെ ബാധിക്കുന്നതാണ് കാരണം രണ്ടും പരസ്പരം ബന്ധപ്പെട്ട ഒരു പ്രക്രിയയാതുകൊണ്ട് അവയിൽ നിന്നും മൊ മുക്തരാകാൻ നല്ല അറിവ് ഉണ്ടായിരിക്കണം രോഗങ്ങളെ പറ്റിയും അറിവുണ്ടായിരിക്കണം ചില രോഗങ്ങൾ മനുഷ്യരിൽ നിന്ന് മൃഗങ്ങളിലേക്ക് പകരുന്നവയുണ്ട് മയ മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്നവയുണ്ട് അതാത് രോഗങ്ങളുടെ രീതി അനുസരിച്ച് അവയെ മൃഗങ്ങളുടെ പരിപാലിക്കുന്നതാണ് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം എപ്പോഴും മൃഗങ്ങളും മനുഷ്യരുമായിട്ടൊരു നിശ്ചിതം അകലം പാലിക്കുന്നത് നല്ലതാണ് വേണ്ടത്ര അറിവും മൃഗപരിപാലനത്തിൽ ഉണ്ടായിരിക്കണം അതാണ് ഏറ്റവും സുരക്ഷിതമായ വളർത്തലിന് ഉത്തമമായത്